സാധാരണ ഞാന് ഏറ്റവും കൂടുതല് പോകുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് പർവതനിരകള് മലനിരകള് പിന്നെ അതുപോലെ ബന്ധുക്കളും വീട്ടിലതുപോലെ വന്ന് കഴിഞ്ഞാല് മതപരമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോകലുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതല് ഞാൻ പ്രീഫെറ് ചെയ്യുന്നത് ഹിൽ സ്റ്റേഷനുകളിലേക്കൊക്കെ പോകാനാണ് അതുപോലെ പർവ്വതനിരകള് പിന്നെ കടലുകള് എല്ലാം എല്ലാടേക്കും പോകാനും എനിക്ക് കൂടുതൽ ഇഷ്ട്ടം തന്നെയാണ് പക്ഷെ ഏറ്റവും കൂടുതല് ഞാൻ ചൂസ് ചെയ്യുന്നത് വളരെ ശാന്തമായ അന്തരീക്ഷം ഉള്ള അധികം ക്രൗടൊന്നും ഇല്ലാത്ത അധികം ജനസാന്ദ്രതയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ടാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക പിന്നെ അതുപോലെ ബന്ധുക്കളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കസ്സിൻസൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാനായിട്ട് ഞങ്ങള് പോവു പോകുന്നുണ്ട് അതായത് അത് ഏത് സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല കാരണം അവരുടെ കൂടെ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് മുഖ്യമായ കാര്യം എന്നതുകൊണ്ട് സ്ഥലമേതെന്ന് നോക്കലില്ല പക്ഷെ ഞാനൊറ്റക്ക് അല്ലെങ്കില് എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കില് ഞാൻ ഇങ്ങനെയുള്ള പർവ്വതനിരകള് അതുപോലെ ഹിൽ സ്റ്റേഷനുകള് അങ്ങനെയുള്ള വളരെ കാമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്